ഹലോ ആ ഞാൻ ഊബറിന്റെ അകത്ത് നിന്ന് ഒരു കാർ ബുക്ക് ചെയ്തായിരുന്നേ ആ എനിക്ക് എയർപോർട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ എൻ്റെ പേര് അക്മൽ ആ ഞാൻ രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പം ബുക്ക് ചെയ്തതായിരുന്നു എനിക്കൊരു അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ബുക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഫൈവ് മിനിറ്റ് കൊണ്ട് എത്തും എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ടും നിങ്ങൾ എത്തിയിട്ടില്ല ഇനി ഇപ്പോൾ പോയിട്ട് കാര്യം ഇല്ലല്ലോ എനിക്ക് ഇപ്പോൾ എനിക്ക് എന്തായാലും ബോർഡിങ് പാസ്സ് ഒന്നും കിട്ടിയിട്ട് എനിക്ക് പോകൽ നടക്കില്ല അപ്പം എനിക്ക് ഇപ്പോൾ എത്ര എത്ര രൂപയുടെ നഷ്ടമുണ്ടായി നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ അതിന് അനുസരിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ ഫൈവ് മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കുമായിരുന്നല്ലോ ആ ഞാൻ രാവിലെ ബുക്ക് ചെയ്തത് ആയിരുന്നു അപ്പം അതിനെകുറിച്ച് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഊബർ ഒക്കെ പോലത്തെ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ ബുക്ക് ചെയ്യുന്നത് ആ എന്നാലും വളരെ മോശം ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് എനിക്കെന്തായലും അപ്പം അതിന് അനുസരിച്ചുള്ള എൻ്റെ ഫണ്ട് റീഫണ്ട് ചെയ്യണം ഞാൻ പെയ്മെൻറ്റ് ഒക്കെ ചെയ്തിരുന്നു അപ്പം അതിന് അനുസരിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്തുതരണം റീഫണ്ട് എന്തായാലും ചെയ്തുതരണം അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഞാൻ ഇത് എന്തായാലും ഫീഡ്ബാക്കിൽ ഇടാൻ പോകുവാണ് വളരെ മോശം ആയിപ്പോയി നിങ്ങൾ ഡ്രൈവറോടോ ആരോട് വേണോ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് എനിക്ക് ഇതിനെകുറിച്ച് ഇങ്ങള ഒരു ഇത് തരണം ഹാ ചൂടാവണമല്ലോ ചൂടാവേണ്ട ഇടത്ത് നമ്മൾ ചൂടാവേണ്ടേ ആ അപ്പം എന്താണ് വെച്ചാൽ റീഫണ്ട് എന്തായാലും ചെയ്തുതരണം കേട്ടോ വളരെ മോശം ആയിപ്പോയി എനിക്കിപ്പോൾ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടെന്നറിയുമോ ഫ്ലൈറ്റും പോയി ആ ആ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്താണെന്ന് റീഫണ്ട് എനിക്ക് തരണം കേട്ടോ ശരി